പന്ത്രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നാല് നാല് രണ്ടായിരത്തി മൂന്ന് എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പതിനഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരം